കുഞ്ഞിൻ്റെ സ്കൂളിലെ ഫീസ് ഘടന എന്നു വച്ചിട്ടുണ്ടെങ്കിൽ പ്രവേശനത്തിന് ആദ്യം രണ്ടായിരം രൂപ ട്യൂഷൻ ഫീ സെപ്പറേറ്റഡ് പിന്നെ ബസ് ഫീ അതോരോ ഓരോ ഇതിനാണ് ബസിന് നമ്മൾ അഡ്വാൻസായിട്ട് രണ്ടായിരം രൂപ കൊടുക്കുന്നു ട്യൂഷൻ ഫീ മന്തിലി കൊടുത്താൽ മതി അഡ്മിഷൻ ടൈമിൽ ഒരു രണ്ടായിരം രൂപ നമ്മൾ കൊടുക്കുന്നു അങ്ങനെയാണ് ട്യൂഷൻ ഫീൻ്റെ ഇത് വരുന്നത്